പഴയ വസ്ത്ര രീതിയും ഇപ്പോഴത്തെ വസ്ത്രരീതിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വസ്ത്രരീതിയെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്താ പറയുക ചുരിദാറ് പിന്നെ ലെഗിൻസ് പിന്നെ കയ്യില്ലാത്ത ഉടുപ്പ് കാലില്ലാത്ത ഉടുപ്പ് അങ്ങനത്തെയൊക്കെയാണ് പണ്ട് രീതിയെന്ന് പറയുന്നുണ്ടെങ്കിൽ പാവാട ബ്ലൗസ് ദാവണി പിന്നെ അമ്മമാരാണെങ്കിൽ സെറ്റ് സാരി ഇനി കുറച്ച് പ്രായമുള്ള ചേട്ടത്തിമാരാണെങ്കിൽ ചട്ടയും മുണ്ടും ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ഉടുക്കാൻ ആർക്കും ആഗ്രഹമില്ല എല്ലാരും പുതിയ മോഡൽ നോക്കീട്ട് ആണ് ഇറങ്ങുന്നത് കാരണം മോഡലെന്ന് പറഞ്ഞെങ്കിൽ കുറേ കയ്യില്ലാത്തത് ഉണ്ടാവും കാലില്ലാത്തത് ഉണ്ടാവും വര നമ്മുടെ മുട്ടിന് താഴത്ത് ഡ്രെസ്സുകളേ ഇപ്പോൾ ഇല്ല ആർക്കും അമ്മമാർക്ക് പോലും ഡ്രെസ്സുകൾ ഇല്ലാന്ന് പറയുന്നതാണ് നല്ലത് കാരണം അമ്മമാരുപോലും ഇപ്പോൾ സാരി എല്ലാം ഉപേക്ഷിച്ചിട്ട് ചുരിദാറിലേക്ക് കേറിയിരിക്കുകയാണ് ചുരിദാറെന്നു പറയുകാണെങ്കിൽ ചുരിദാർ നല്ലതാണ് പക്ഷെ അത് ഇടുന്നത് പോലെ ഇടുകയാണെങ്കിൽ അത് ഉപകാരപ്രദമായിട്ടുള്ളതാണ് അല്ലെങ്കിലത് എന്താ പറയുക കുറേ ചുരിദാറിന് പല സൈസ് ചുരിദാറുണ്ട് ഓപ്പൺ ചുരിദാറുണ്ട് ഉടുപ്പ് ചുരിദാറുണ്ട് അങ്ങനെ പല സൈസ് മോഡൽ ചുരിദാറും കിട്ടും ഞാനെനിക്ക് ഇഷ്ടപ്പെടുന്നത് സാരി ഉടുക്കാൻ തന്നെയാണ് കാരണം ഞാനിവിടെ ഒരു കടയിൽ നിന്ന് സെലെക്ഷൻ ചെയ്ത് സാരി മേടിക്കുന്നത് എനിക്ക് സാരിനോട് ആണ് താല്പര്യം കാരണം നമ്മൾ പഴയ രീതിയെന്ന് പറഞ്ഞാൽ സാരി ആണ് സാരി ഉടുക്കുന്നതാണ് ഏറ്റവും നല്ല ഭംഗി ആരുടുത്താലും സാരിക്കൊരു പ്രത്യേക ഭംഗി ആണ് ചുരിദാറെന്നൊക്കെ പറയുമ്പം നമ്മൾ മോഡലിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഇപ്പം അധികം ദൂരസ്ഥലത്തേക്ക് ഒക്കെ പോയിക്കഴിഞ്ഞാൽ പെൺകുട്ടികളെ വസ്ത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്കൊക്കെ പറഞ്ഞുകൊടുക്കാം എന്ന് അമ്മമാരൊന്നും പറഞ്ഞുകൊടുക്കില്ല കാരണം ഇപ്പോൾ മോഡൽ ആണ് കൂടുതൽ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് മോഡലിൽ നടക്കാനാണ് പണ്ടത്തെ പെൺകുട്ടികൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവാട ബ്ലൗസ് പറഞ്ഞുള്ള ഒതുങ്ങിയ ഒരു ശരീര ഭംഗിക്ക് ഇണങ്ങിയ ഒരു വസ്ത്രം തന്നെയാണ് പാവാടയും ബ്ലൗസും അതുപോലെതന്നെയാണ് നമ്മളെല്ലാവരും തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട യോജിച്ച വസ്ത്രം പഴയ രീതിയിലുള്ള വസ്ത്രരീതി എന്നാണ് ഞാൻ പറയുന്നത്